ആരോഗ്യപരമായ ജീവിതശൈലിക്ക് കായികപരം ക എത്ര സ്ട്രസ്സ് ഉണ്ടെങ്കിലും ഒന്ന് ഇറങ്ങി റണ്ണിങ് ചെയ്യുക അല്ലെങ്കിൽ ജോഗിംഗ് ചെയ്യുമ്പം മൈൻ്റൊന്ന് ഫ്രീ ആയി കിട്ടും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ശരീരത്തിൻ്റെ ആ ബല ബലം എല്ലാം വർദ്ധിക്കും ഒരാളെ ഫിറ്റായിട്ട് ബോഡി ഫിറ്റായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും എപ്പോഴാണെങ്കിലും പെട്ടെന്നവർക്ക് ഒരു അസ്വസ്ഥത അനുഭവപ്പെടില്ല കാരണം ഫിറ്റാണ് അതുകൊണ്ട് പെട്ടെന്ന് ഓടേണ്ടി വന്നാലും ഇല്ലെങ്കിൽ കുറേ സ്റ്റെപ്പുകൾ കയറേണ്ടി വന്നാലും ജോലി ചെയ്യുന്ന സ്ഥലത്ത് കുറേ സ്റ്റെപ്പുകൾ കയറേണ്ടി വന്നാലും ഒന്നുമില്ല പിന്നെ അതുപോലെ മൈൻ്റിലുള്ള മൈൻ്റ് റിലാക്സാകാനുമെല്ലാം ജോ ഇത് റണ്ണിങ്ങും കായികപരമായിട്ടുള്ള കഴിവുകളും എല്ലാം ഇതാകും ഇപ്പോൾ കായികമായിട്ട് റണ്ണിങ് മാത്രമല്ല ഇപ്പോൾ ഫുട് ബോൾ കളിക്കുന്നത് ആയാലും ഒരു കുട്ടിക്ക് മൈൻ്റ് ഫ്ര മൈൻ്റ് ഫ്രഷാകും എൻജോയ്മെൻ്റ് അത് പലർക്കും പല രീതികളിൽ പല കൗതുകങ്ങളും കായിക വിനോദങ്ങളും ഉണ്ട് അതെല്ലാം ചെയ്യുമ്പോൾ മൈൻ്റ് റി റിലാക്സ് ആവുകയും വർക്ക് സ്ട്രെസ്സെല്ലാം പോകുകയും ചെയ്യും